ഇപ്പം നമുക്ക് യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയായിലൂടെ ഒക്കെ തുന്നലിനെ പറ്റിയും നെയ്ത്തിനെ പറ്റിയും ഒക്കെ ഒത്തിരി പറയാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒത്തിരി പേര് ഇതിലെല്ലാം ഈ കലകളിലെല്ലാം അത്രയും പ്രാബല്യം നേടി വരുന്നുണ്ട് അത്രയും ഇതിപ്പം പ്രത്യേകിച്ച് നമുക്കൊര് സ്ഥലത്ത് പോകാൻ പോയി പഠിക്കാനോ അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല ഈ കൊറോണ വന്നതിനൊക്കെ വന്നതിന് ശേഷം എല്ലാം ഈ ചാനൽ വഴി നമുക്ക് നെയ്ത്ത് പറ്റി എങ്ങനെ ഒരു ഒരു വസ്ത്രം നെയ്തെടുക്കാം പറ്റും എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും തയ്ക്കാൻ പറ്റും ഇതൊക്കെ മനസ്സിലാകും ഇപ്പം നമുക്കൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ഇതിനെ പറ്റി ഒക്കെ അറിവുണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഈ യൂട്യൂബ് ചാനലിലൊക്കെ ഇപ്പോൾ ഒരു നൈറ്റി തയ്ക്കുന്ന എങ്ങനെയാണെന്ന് ഒരു ചുരിദാറിൻ്റെ ടോപ് തയ്ക്കുന്ന എങ്ങനെയാണ് ബോട്ടം തയ്ക്കുന്ന എങ്ങനെയാണ് സാരീ ബ്ലൗസ് തയ്ക്കുന്ന എങ്ങനെയാണ് ഇതെല്ലാം നമുക്കിപ്പം ഒരു മെഷിനും നമുക്കൊരു ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെല്ലാം അക്കൗണ്ട് തുടങ്ങി നമുക്കൊരോന്നും ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ പറ്റി ഒക്കെ കൂടുതലും കൂടുതല് സാധനങ്ങൾ തയ്ക്കാൻ പറ്റും തയ്യലാണ് ഏറ്റവും വലിയൊരു കാര്യം ഇപ്പം തയ്ക്കാതെ ഒരു സംഗതി ഇല്ല ഇപ്പം ഒരു മനുഷ്യന് തയ്യൽ തയ്ച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വസ്ത്രം ആവശ്യമാണ് തയ്ച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളു നമ്മള് റെഡിമെയ്ഡ് മേടിക്കുന്ന ആണേലും ആരെങ്കിലും അത് തയ്ക്കൂല്ലേ അന്നേരം നമുക്ക് തന്നെ ഇതിലൊര് അക്കൗണ്ട് തുറക്കുകയോ യൂട്യൂബ് ചാനലുകള് തിരയുകയോ ചെയ്യുമ്പം എങ്ങനെ ഇപ്പം നമ്മുടെ സമയമെങ്ങനെ ഇതിന് വിനിയോഗിക്കാം നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം പറ്റത്തുള്ളൂ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം ഇപ്പം ഇപ്പം നമുക്ക് കുറച്ച് കാര്യം അറിയാമെങ്കിൽ നമുക്കിതിൽ കൂടുതല് പ്രാഗല്ഭ്യം നേടാൻ ഇപ്പം പരിശ്രമത്തിലൂടെ എല്ലാം പരിശ്രമത്തിൽ കൂടെ മാത്രമേ സാധിക്കു അങ്ങനെ ഇപ്പോൾ ഒത്തിരി ഒത്തിരി പേര് ഈ കൊറോണ വന്നതിന് ശേഷം ഒത്തിരി പേര് തയ്ക്കാൻ പഠിക്കുകയും അത്പോലെ തന്നെ എംബ്രോയ്ഡറി നമ്മള് നല്ല തുണികള് മേടിച്ച് അതില് എംബ്രോയ്ഡറി ഇങ്ങനെ തയിച്ച് തയിച്ച് പൂക്കളെ പറ്റിയും വൃക്ഷങ്ങളെ പറ്റിയും മൃഗങ്ങളെ പറ്റി ഉള്ള ചിത്രങ്ങൾ തുന്നാനും അതനുസരിച്ച് നല്ല രീതിയില് പെയിൻറ്റ് ചെയ്യാനും ഒക്കെ പഠിക്കുന്നു ഇപ്പം ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ക്ലാസ്സുകളിലക്കെ പോകുന്നില്ല എല്ലാം ഈ യൂട്യൂബ് ചാനലിലൂടെ ഒത്തിരി നമുക്ക് മാർഗ്ഗങ്ങള് അവസരങ്ങൾ കിട്ടും അങ്ങനെ അവസരങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഉയർന്ന പോകാൻ പറ്റും അതിനെല്ലാം നമുക്ക് പരിശ്രമിക്കണം പരിശ്രമിക്കാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല നമുക്ക് സമയവും വേണം മനസ്സും വേണം അതിനോട് താല്പര്യം വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതിലുമൊരു പ്രാകൽഭ്യം നേടാൻ പറ്റു എല്ലാവർക്കും എല്ലാ കഴിവും ഉള്ളവരല്ല പക്ഷെ ഓരോ സമയത്തും ഓരോ സാഹചര്യങ്ങൾക്ക് സാഹചര്യമനുസരിച്ചാണ് മനുഷ്യരെ ഉയർത്തുന്നത് സാഹചര്യം സാഹചര്യം നല്ലത് പിന്നെ നമ്മുടെ അവിടെ ആവശ്യങ്ങൾ ആവശ്യങ്ങളനുസരിച്ച് എപ്പം പൈസ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് പരിശ്രമിക്കും പൈസ ഉണ്ടാക്കാനുള്ള വിധം അതിപ്പോൾ ഈ നെയ്ത്തിലൂടെ ആയാലും തുന്നലിലൂടെ ആയാലും നമുക്ക് നല്ല നല്ല നമ്മുടെ കൈ കൊണ്ടും മനസ്സ് കൊണ്ടും നല്ല നല്ല ചിന്തകളുണ്ട് നല്ല നല്ല നല്ല നല്ല ചിന്തകള് വന്ന് അതെങ്ങനെ തയ്ക്കാൻ പറ്റും എങ്ങനെ ഒരു സാധനം തുന്നി എടുക്കാൻ പറ്റും എങ്ങനെ ഒരു എംബ്രോയ്ഡ് തയ്ക്കാം പെയിൻറ്റിങ് ചെയ്ത് വസ്ത്രം മനോഹരമാക്കാം എന്നൊക്കെ നമ്മള് പരിശ്രമിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമുക്ക് ഇതെല്ലാം നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും അല്ലാ എങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത്കൊണ്ട് നമുക്ക് നല്ല ഒരു മനസ്സും നല്ല ശക്തിയും നല്ല കഴിവുകൾ കഴിവുകളിപ്പം കുറഞ്ഞിരുന്നാലും പരിശ്രമം എന്തിനായാലും പരിശ്രമമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റു പരിശ്രമം ഇല്ലാതെ ഒന്നും പറ്റ നമ്മുടെ ചുറ്റുപാട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണും അന്നേരം നമ്മൾ ചിന്തിക്കണം ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താം ഇതെങ്ങനെ തുണി തുണി നെയ്തെടുക്കാം തുന്നി എടുക്കാം തുന്നി എടുത്ത് നല്ലൊര് കൊച്ചുങ്ങൾക്ക് ആണെങ്കിൽ ഒരു ഫ്രോക്ക് ആൺകുട്ടികൾക്കാണെങ്കിൽ പാൻറ്റീസ് ഇത് പാൻറ്റ് ഇതൊക്കെ നെയ്തും തുന്നിയും ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് നമുക്ക് പരിശ്രമിച്ച് നമുക്ക് ധൈര്യമായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിത് വച്ച് എല്ലാം ചെയ്യാൻ പറ്റും അല്ലാ നമുക്കത് പറ്റുന്നില്ല പറയാനുള്ള മനസ്സ് വേണം പരിശ്രമം വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ അതിനുള്ള സാഹചര്യം വേണം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങള് ചെയ്ത് നമുക്കതിലൊക്കെ പ്രാഗല്ഭ്യം നേടി നേടുന്നുണ്ട്